ഒരിക്കൽ ഞാൻ സ്വന്തമായി ചേരുവകൾ ഉണ്ടാക്കി ഒരു വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്തെന്ന് വെച്ചാൽ ഒരു കോഴി വരട്ടിയതാണ് സാധാരണയായി കോഴി വരട്ടുമ്പോൾ ഞാൻ പുറത്ത് നിന്ന് വാങ്ങുന്ന റെഡി മെയ്ഡ് മസാലകളാണ് സാധാരണയായി ഉപയോഗിക്കാറ് അതായത് മഞ്ഞപ്പൊടി മുളക്പൊടി ഗരംമസാല എന്നിവയെല്ലാം പക്ഷെ ഒരിക്കൽ എനിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എല്ലാം പൊടിച്ച് അതായത് മല്ലി മഞ്ഞൾ അതുപോലെ തന്നെ മസാലകൾ എല്ലാം പൊടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് ഒന്ന് പാചക പരീക്ഷണം നടത്തിയാലോ എന്ന് തോന്നുകയുണ്ടായി അതുകൊണ്ട് ഞാൻ ഈ മസാലകൾ എല്ലാം അതായത് മഞ്ഞൾ മുളക് മല്ലി അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലകൾ പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ള എല്ലാ കറി മസാലകളും പെരുംജീരകം എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി അവ പൊടിച്ച് അങ്ങനെ ഒരു തവണ പരീക്ഷണം നടത്തിട്ടുണ്ട് അതിന് വളരെ അധികം ടേ സ്വാദ് ഉണ്ടായി വീട്ടിൽ എല്ലാവർക്കും വളരെ അധികം ഇഷ്ടമായി